വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ ഞാൻ സ്വീകരിക്കുന്ന നടപടികൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായി തന്നെ ഈ പ്ലാസ്റ്റിക്ക് വസ്തുക്കൾ ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആളുകൾ വന്ന് ശേഖരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക്ക് നമുക്ക് ഇവിടെ കത്തിക്കുവോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട മുനിസിപ്പാലിറ്റിൽ ഒരു പൈസ കൊടുത്താൽ അവർ അത് കൊണ്ട് പോയിക്കോളും അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് നമുക്കിവിടെ വരുന്നില്ല പിന്നുള്ളതെന്ന് പറയുന്നത് ഭക്ഷ്യ വസ്തുക്കളുടെ ഇതാണ് അപ്പോൾ അത് നമ്മളൊരു കുഴി കുത്തി മൂടുന്നതാണ് പിന്നേന്ന് വെച്ചാൽ ഈ മഴക്കാലങ്ങളായാൽ ഈ വെള്ളം എല്ലാം കെട്ടി കിടക്കുന്നുണ്ടോയെന്ന് നോക്കി അതൊക്കെ കമഴ്ത്തി കൊതുകുകൾ മുട്ടയിടാത്ത രീതിയിൽ ആക്കി വെക്കുന്നു അതുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കപ്പെടും പിന്നെ ബാക്കി വരുന്ന പേപ്പർ അതുപോലുള്ള വസ്തുക്കൾ കൂട്ടിയിട്ട് ഒരു ആർക്കും ദോഷമില്ലാതെ നമ്മൾ നിർവ്വീകരിക്കുന്നു